അതെ സാർ വരു സാർ വെൽക്കം സാർ ഓക്കെ സാർ ഓക്കെ സാർ ഓ വെരി ഗുഡ് ഓക്കെ ഞങ്ങൾ ഇവിടെ എല്ലാമുണ്ട് സാർ എല്ലാം കിട്ടുന്നതാണ് ഒരു വീട്ടിൽ ഇപ്പം മെയിനായിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കൊച്ചുകുടിയിൽ തന്നെയുണ്ട് നമുക്ക് പുറത്തേയ്ക്ക് പോകേണ്ട ആവശ്യമേ വരിന്നില്ല അതായത് നമുക്ക് മെയിൻ സാധനങ്ങൾ തൊട്ട് മുതൽ പാത്രങ്ങൾ വരെ എല്ലാം കൊച്ചുകുടിയിലുണ്ട് അതെ ഓക്കെ അതെ സാർ ഇവിടെ ഓണത്തിൻ്റെ ഓഫർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കയാണ് കഴിഞ്ഞിട്ടില്ല അതെ ഓണം ഓഫർ ഇപ്പോൾ നല്ല ഗ്രാന്റായിത്തന്നെ പോയിക്കൊണ്ട് ഇരിക്കുന്നത് സാറിന് ഇപ്പം ഏതാണ് വേണ്ടത് സാർ പ്രൊഡക്ട് ടി വി ഉണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് ആ നമുക്ക് കുറച്ച് ടി വിയിലേക്ക് പോസാക്കാം ടി വി ടി വിയിൽ നല്ല കമ്പനികളുള്ളത് സാംസംഗ് ടി വി വരുന്നുണ്ട് പിന്നെ എം ഐ റെഡ്മിയുടെ ടി വി ഇപ്പം നല്ല കച്ചവടമാണ് ഇപ്പോൾ പുതുതായി റിയൽമീ ടി വി അതെ സ്മാർട്ട് ടി വി ഓ ആ എത്ര പൈസ അതോ വേണോ എല്ലാവരും കൊണ്ടുപോവുന്നത് ആൻഡ്രോയിഡാണ് ആൻഡ്രോയിഡ് ടി വിയാണോ പുതിയ വീട് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ വലിയ ഒരു ടി വി വച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എത്ര ഇഞ്ചിൻ്റെ ടിവിയാണ് സാർ വേണ്ടത് ഫോർട്ടി വൺ ഉണ്ട് സാർ അത് അത്ര റേറ്റ് ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ

ഓ ഓക്കെ അപ്പോൾ ടി വി ഏതാണ് ഏത് ഏത് സാറെ പ്രൈസ് വരുന്നത് റെഡ്മി കുറച്ച് കമ്മിയാണ് സാർ റെഡ്മി കമ്പനിയുടെ ടി വികൾക്ക് ജസ്റ്റ് പത്ത് അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഫോർട്ടി വൺ ഇഞ്ച് അതെ സാംസംഗിൻ്റെ ആണെങ്കിൽ കുറച്ച് കൂടും സാർ സാംസംഗ് സോണി ഒക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഈ ട്വന്റി പെർസെന്റ് ഇതൊക്കെയാണ് ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത് സോണി തന്നെയാണ് സാർ സോണി പക്ഷെ കുറച്ച് നമുക്ക് റേറ്റ് വരും പക്ഷെ ഇപ്പോൾ ഒരുപാട് നാൾ നീണ്ട് നിൽക്കും നല്ല പിക്ച്ചർ ക്വാളിറ്റി ആയിരിക്കും അതെ അത് ഞങ്ങൾ ഞങ്ങൾ ചെയ്തു തരും കൊച്ചുക്കുടിയിൽ തന്നെ സ്വന്തം സർവ്വീസ് മാനുണ്ട് അയാൾ തന്നെ വന്നു സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഡെലിവറി സാർ ഫ്രീ ഡെലിവറി ആണ് ഉണ്ടല്ലൊ ഇവിടുണ്ട് ഓക്കെ സാറെ നമുക്ക് അതെ എ സി വേർപൂളാണിപ്പോൾ മികച്ച് നിൽക്കുന്നത് വേർപൂൾ പിന്നെ അതെ പിന്നെ സാംസംഗിനുണ്ട് അത് ന്യൂ ആണ് സാർ പക്ഷെ വേർപൂൾ പണ്ട് മുതലെ നിൽക്കുന്ന കാരണം ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ട് വെറും കുറച്ച് വാട്ട് കൂടിയ നല്ലൊരു എ സിയാണ് നമ്മൾ സെലക്ട് ചെയ്യുക സാർ ഓക്കെ സാർ സാർ അപ്പം വാഷിംഗ് മെഷീന്റെ ഏത് കമ്പനിയാണ് വേണ്ടത് വാഷിംഗ് മെഷീൻ സാർ സാംസംഗ് നല്ലതാണ് സാർ വാഷിംഗ് മെഷീൻ കമ്പനികളിൽ സാംസംഗ് ഒനീഡ ഉണ്ട് അതെ എൽ ജി സാംസംഗ് ഒനീഡ വേർപൂൾ ഒക്കെ ഉണ്ട് ഇപ്പം കൂടുതൽ എല്ലാവരും വിറ്റ് വിറ്റ് പോവുന്നത് സാംസംഗാണ് സാർ കൂടുതൽ സാംസംഗ് ഫ്രിഡ്ജ് അതെ അത് നമുക്ക് കുറച്ച് തരാം സാർ സാംസംഗൊക്കെ വാഷിംഗ് മെഷീൻ നമുക്ക് നന്നായി പ്രൈസ് കുറച്ച് തരാൻ പറ്റും ഓക്കെ പിന്നെ സാർ വേറ എന്തെങ്കിലും സാർ ഇനി നമുക്ക് വേണ്ടത് ഫ്രിഡ്ജ് അതെ സാർ എനി വേർപൂളാണ് സാർ നന്നാവുക വേർപൂളുണ്ട് സാംസംഗ് ഉണ്ട് അതെ ഒനീഡ ഉണ്ട് അങ്ങനത്തെ കമ്പനികളാണ് ഉള്ളത് നമ്മൾക്ക് വേർപൂൾ എടുക്കാം അല്ലെ സാർ കൂടുതൽ കൂളിംഗ് കിട്ടുന്നത് വേർപൂളായിരിക്കും ഓക്കെ ഇമെയിലിലേക്ക് കടക്കാം ഓക്കെ സാർ ശരി ശരി